എൻ്റെ പ്രദേശത്ത് കൂടുതലായിട്ടും വിനോദ സഞ്ചാരികള് വരുന്ന സ്ഥലമെന്ന് പറയുന്നത് ഭീരുമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ എന്തുകൊണ്ടാണ് അവർ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരേ ശാന്തമായ അന്തരീക്ഷത്തില് കുറച്ച് നേരം സമയം ചിലവഴിക്കാൻ വേണ്ടിതന്നെ വേണ്ടിത്തന്നെയാണ് അവിടെ ഒരുപാട് കാടുകൾക്കിടയിലൂടെ നമ്മള് മല കയറി നടന്ന് പോയി അതിൻ്റെ ടോപ്പിലെത്തുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രദേശത്തിൻ്റെ മുഴുവൻ കാഴ്ചയും കാണാനായിട്ട് കഴിയും അത് വളരേ നല്ലൊരു അനുഭൂതിയാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചെല്ലുകയാണെങ്കില് സൂര്യോദയവും വൈകുന്നേരങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ സൂര്യാസ്തമയവും കാണാൻ കഴിയും വളരേ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെയുള്ളത് കൂടാതെ തന്നെ കൂട്ടുകാരുമൊത്താണെങ്കിലും കൂടുംബക്കാരുമൊത്താണെങ്കിലും ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിനോദ സഞ്ചാരികളും അങ്ങോട്ട് തന്നെ വരുന്നത്